ഇപ്പോൾ ഫോണും പിന്നെ റേഡിയോയും ഒക്കെ ഉള്ളത് കൊണ്ട് വാർത്തകളൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും പിന്ന ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊണ്ട് ഓരോരോ വ പിന്നെ ഫോണിലും വാട്സാപ്പിലുമൊക്കെ ഇങ്ങനെ ഓരോരോ ഇത് വ്യാജവാർത്തകൽ ഇങ്ങനെ വരുന്നുണ്ട് ഇന്ന ആൾ തന്നെ ഇപ്പോൾ ഇതേമാതിരി ഒരു കുട്ടി പിന്നെ ചൂട് ചൂടത്ത് വന്നിട്ട് കുടിച്ചിട്ട് തണുത്ത വെള്ളം കുടിച്ചിട്ട് ഞരമ്പ് പൊട്ടി മരിച്ചു എന്നൊക്കെ പറയുന്നു പക്ഷെ യാഥാർഥ്യം അതല്ല ഡോക്റ്റ്മാർ പറഞ്ഞത് അത് കൊണ്ടൊന്നുമല്ല അങ്ങനെ ഓരോരുത്തർ ഓരോരോ പിന്നെ വ്യാജ വാർത്തകളൊക്ക ഓരോന്ന് പറഞ്ഞ് അങ്ങനെ പരത്തും പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഫോണും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം അങ്ങനെ അപ്പപ്പോൾ നമ്മൾക്ക് തമ്മിൽ കാണാനും കണ്ട് വിളിക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളും ഇതൊക്കെ ഇപ്പോൾ ഉള്ളത് കൊണ്ട് നല്ല ഒരു ഇതാണ് പിന്നെ ഇപ്പൊൾ എന്ത് ഇതായാലും നമ്മൾക്ക് എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം അറിയാനും ഇതിനൊക്കെ കഴിയും പിന്നെ ഇങ്ങനെ ഓരോരോ വ്യാജ വാർത്തകൾ ഓരോരുത്തര് ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുന്നത് അത് അവരോടായിട്ടുള്ള ഓരോരോ ഇത് അങ്ങനെ ഒന്നും പ്രചരിപ്പിക്കാൻ പാടില്ല വാർത്തകളൊന്നും നമ്മൾ ഉള്ള കാര്യങ്ങൾ ഉള്ളത് അത്പോലെ പറഞ്ഞ് ഇതാക്കുക എന്നല്ലാതെ വെറുതെ നമ്മൾ ഒരു ഒന്നുമല്ലാത്ത ആൾക്കാരെ വെറുതെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി പറയാമെന്ന് പറഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്